ഹലോ അതെ അതെ അതെ ആഹ് ഹോട്ടലാണ് എന്താണ് സാർ മാഡം ഉണ്ടല്ലോ ഇതെവിടെ നിന്നാണ് വിളിക്കണത് നിങ്ങൾ അവടേയ്ക്ക് വന്നതാ ടൂർ വന്നതാണോ ആഹ് ആഹ് ആഹ് എത്രപേരുണ്ട് മാഡം

നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഹോട്ടലിൽ വന്ന് കഴിക്കാനാണോ അതോ എത്തിക്കണോ ഓക്കെ മാഡം എത്തിക്കാമല്ലോ എന്താണ് സ്പെഷ്യൽ വേണ്ടത് സദ്യയാണോ ആയിക്കോട്ടെ ഒരൂ എട്ട് കൂട്ടം കറിയും പായസം രണ്ടും രണ്ടുതരം ഉണ്ട് ആഹ് അടപ്രഥമനുണ്ട് ചെറുപയർ പയർ ചെറുപയർ പായസമുണ്ട് എപ്പോഴത്തേക്കാണ് മാഡം എത്തിക്കേണ്ടത് ആയിക്കോട്ടെ പിന്നേ കുടിക്കാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും വേണോ മാഡം അതെയോ പിന്നെ വേറെ ഈ ഊണല്ലാതെ നോൺവെജ് ഉണ്ട് ചിക്കൻ ഐറ്റംസ് ഉണ്ട് ബീഫ് ബീഫ് ഉണ്ട് എല്ലും കപ്പയും ഇവിടുത്തെ സ്പെഷ്യൽ ആണ് മാഡം ഊണ് മാത്രം മതിയായിരിക്കും അല്ലേ മതിയോ ആഹ് ഇനി വേറെയെന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ മാഡം ഞങ്ങൾ എത്തിച്ചോളാം ഇല്ല ഇല്ല എത്തിച്ചോളാം എത്തിച്ചോളാം ഓക്കെ മാഡം എന്നാൽ താങ്ക് യു